ആ രണ്ട് ദിവസമായി അല്ലേ തുടങ്ങിയിട്ട് വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്

അങ്ങനെ ആണെങ്കിൽ മഴ എന്തെങ്കിലും നനഞ്ഞാ നനഞ്ഞായിരുന്നോ അതോ പച്ചവെള്ളം അങ്ങനെ മ് മഴക്കാലം അല്ലേ അപ്പം മഴ നനയാണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ വേറെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് ഉള്ളത് ആണല്ലേ പിന്നെ അതായത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ജലദോഷത്തിൻ്റെ ഗുളികയോ പനീൻ്റെ ഗുളികയെങ്ങാനും ഉണ്ടോ വീട്ടിൽ പാരസെറ്റമോൾ കഴിച്ചായിരുന്നോ പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ പനി വന്നപ്പോൾ ആ ആ പാരസെറ്റാമോൾ ഒന്ന് കഴിച്ചുനോക്കൂ അതായത് മൂന്ന് നേരം കഴിക്കണം കഴിക്കുമ്പോ പിന്നെ നമ്മൾ മൂന്ന് നേരം കറക്റ്റ് അതാണ് മൂന്ന് നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡോസ് ആവുള്ളൂ മ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുന്നെ പാരസെറ്റമോൾ കഴിക്കുന്നതിന് മുന്നെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പാരസെറ്റമോൾ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്ഷീണം ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പാരസെറ്റമോൾ തന്നെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക പിന്നെ തലവേദന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വീട്ടിൽ ബാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിക്സോ അമൃതാഞ്ജൻ എന്തെങ്കിലും അങ്ങനെ ആണെങ്കിൽ വിക്സ് ഒന്ന് തേച്ച് നോക്കുക എന്നിട്ട് ഒരു ദിവസം ഫുൾ കഴിക്കുക അതായത് ഗുളിക കഴിച്ചു നോക്കുക എന്നിട്ട് പിറ്റേ ദിവസം വലിയ അതായത് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും കാരണം ഇനിയിപ്പം മൂത്രത്തിൽ പഴുപ്പ് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പനി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അപ്പം അങ്ങനെയൊന്ന് ശ്രദ്ധിച്ച് അതൊന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരൂ കുറവില്ലെങ്കിൽ മാത്രം കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ മൂന്ന് ഡോസ് ആയിട്ട് പിറ്റേ ദിവസം കൂടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും നമുക്ക് മാറും അപ്പം അങ്ങനെയൊന്ന് കഴിച്ച് നോക്കുക കഴിച്ച് നോക്കിയിട്ട് മാറ്റമില്ലെങ്കിൽ മാത്രം വന്നാൽ മതി പിന്നെ പച്ച വെള്ളം കഴികു കുടിക്കാണ്ടിരിക്കുക മഴ അങ്ങനെ നനയാണ്ടിരിക്കുക ഇപ്പോൾ ഒരു രണ്ട് ദിവസം കുളിക്കേണ്ട അതായത് തല മാത്രം കുളിക്കേണ്ട മേൽ മാത്രം കുളിച്ചാൽ മതി അപ്പം ചിലപ്പം നമുക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ എന്നാൽ കുറവില്ലെങ്കിൽ വാ കേട്ടോ